പണ്ടൊരിക്കൽ എൻ്റെ കുട്ടിക്കാലത്ത് ഞാന് എൻ്റെ അമ്മ വീട്ടിലായിരിക്കുന്ന സമയത്ത് ഞാനും എൻ്റെ അമ്മാവനും കൂടെ മീൻ പിടിക്കാൻ പോവുകയും വാളയെ കിട്ടുകയും ചെയ്തു വളരെ അപ്രതീക്ഷിതമായി വാളയെ കിട്ടുകയും അത് എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവിതത്തിലെ ആദ്യ അനുഭവമായിരുന്നു വാളയെ കിട്ടുമെന്ന് അന്നേ ദിവസം ഒട്ടും പ്രതീക്ഷിച്ചിട്ട് പോലുമുണ്ടായിരുന്നില്ല വാള പൊതുവേ നല്ലൊരു മീനാണ് നല്ല ടേസ്റ്റാണ് ആയതോണ്ട് തന്നെ വാള കിട്ടുകയും വാള ഉദ്ദേശം മൂന്ന് മൂന്നരക്കിലയോളം തൂക്കം വരുന്ന വാള കിട്ടുകയും അത് വീട്ടിൽ കൊണ്ട് കൊടുക്കുകയും ചെയ്തു വീട്ടിൽ കൊണ്ട് കൊടുത്ത നേരം കൊണ്ട് എൻ്റെ അമ്മ വളരെ അധികം സന്തോഷത്താൽ മതിമറന്നു അതുപോലെ തന്നെ ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയ മത്സ്യമായതുകൊണ്ട് എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവിതത്തിലെ ആദ്യ അനുഭവമായിരുന്നു അത് വളരെ അധികം സന്തോഷം ഉണ്ടാക്കുകയും എൻ്റെ വീട്ടുകാർ എന്നെ അനുമോദിക്കുകയും ചെയ്യുകയുണ്ടായി വാള വളരെ അധികം രുചിയുള്ളൊരു മത്സ്യമാണ് മുള്ളുകളുണ്ട് മുള്ളുകള് വൃത്തിയാക്കണം മുള്ളുകൾ വൃത്തിയാക്കിയില്ലെങ്കിൽ അത് ഭക്ഷിക്കുമ്പോഴുണ്ടാകുന്ന അപകടങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും പിന്നീട് ഈ മത്സ്യത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ചിതമ്പൽ ഇതിൻ്റെ ചിതമ്പൽ നമ്മൾ കളയുന്നത് നന്നായിരിക്കും അല്ലാത്തപക്ഷം മീനിൻ്റെ വളരെയധികം ഉളുമ്പ് മണക്കുകയും നമുക്ക് കഴിക്കാൻ തന്നെ അസ്വസ്ഥത ഉണ്ടാക്കുകയും ചെയ്യും വളരെ വൃത്തിയായി പാകം ചെയ്യേണ്ടൊരു മത്സ്യം കൂടെയാണ്

അതുപോലെ തന്നെ മത്സ്യത്തെക്കുറിച്ച് പറയുമ്പോൾ പ്രത്യേകം പറയേണ്ട മറ്റൊരു കാര്യമാണ് മത്സ്യങ്ങളിൽ ഉള്ള ഒമേഗ ഒമേഗ എന്ന് പറയുന്ന വൈറ്റമിൻ അത് ശരീരത്തിന് വളരെയധികം വേണ്ടപ്പെട്ട ഒരു വൈറ്റമിനാണ് മുടി വളർച്ചയ്ക്കും അകാലനര ഒഴിവാക്കുന്നതിനും ഒക്കെ അത് വളരെ അധികം സഹായം ചെയ്യും അതുപോലെ തന്നെ തലക്കറി നമുക്ക് തലക്കറിയാണെങ്കിലും വളരെ നന്നായിട്ട് ഉണ്ടാക്കി എടുക്കാൻ സാധിക്കുന്നൊരു മത്സ്യവും കൂടെ ആണിത് തലക്കറി എല്ലാം മനുഷ്യനും കഴിക്കാറില്ല പക്ഷേ കഴിക്കുന്നവരെ സംബന്ധിച്ച് അത് വളരെ അധികം രുചികരവും വളരേ ടേസ്റ്റ് ഉള്ള ഒരാഹാരം കൂടിയാണ് ഈ മത്സ്യം കറി വെക്കാനും അതുപോലെ തന്നെ പൊരിച്ച് കഴിക്കാനും വളരെ അധികം നല്ലതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം വറുത്ത് കഴിക്കുന്നതിലും രുചി മറ്റൊന്നിനുമില്ല കറിയായിട്ടോ വറുത്തോ കഴിക്കാം ഇതൊക്കെ ആൾക്കാരുടെ ആൾക്കാരുടെ മനോഭാവം പോലെയും അവരുടെ ആവശ്യകത പോലെയുമിരിക്കും പിന്നീട് ഇതിനെ രുചിയെക്കുറിച്ച് പറയുമ്പോൾ എടുത്ത് പറയേണ്ടത് ഇതിന് വളരെഅധികം രുചി ഉണ്ട് പിന്നെ ഇതിൻ്റെ ആരോഗ്യ ഗുണങ്ങളും വളരെ അധികമാണ് റെഡ് മീറ്റിനേക്കാൾ വൈറ്റ് മീറ്റാണ് ശരീരത്തിന് ഏറ്റവും നല്ലത് റെഡ് മീറ്റുകളുടെ ഉപയോഗം കുറയ്ക്കുകയും വൈറ്റ് മീറ്റുകളുടെ ഉപയോഗം കൂട്ടുകയും ചെയ്യുന്നത് ശരീരത്തിന് വളരെ അധികം നന്നായിരിക്കും അതുപോലെ തന്നെ മറ്റ് മാംസങ്ങൾ പോലെ തന്നെ മത്സ്യത്തിനുള്ള പങ്കും വളരെ വലുതാണ്